ആ അതെ ചേട്ടാ പറഞ്ഞോ എന്തേനു ആ സാറേ പറഞ്ഞോ ഏതാണെന്ന് നമുക്ക് ആപ്പിളിൻ്റെ എല്ലാ സീരീസുമുണ്ട് സാംസഗിൻ്റേയും ഉണ്ടെല്ലാം എസ് ട്വൻ്റി ഫോറ് ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് എല്ലാം എല്ലാം ഉണ്ട് സാറേ സാറിനേത് വേണം പോക്കോ ആ പോക്കോ ഉണ്ട് സാറേ പോക്കോ ഉണ്ട് പോക്കോ ഉണ്ട് പോക്കോ എക്സ് ഫൈവ് ഉണ്ട് ഓ ആ അതെ അതെ ആ ആ ആ ആ ആ സാറ് ബഡ്ജറ്റ് എത്ര ഉദ്ദേശിക്കുന്നത് ആ ആ ചെറുക്കൻ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് പറഞ്ഞോ ശരി ഫോണൊക്കെ കിടിലം സാധനമാണ് പക്ഷേ സാറ് എത്ര ഒരു ബഡ്ജറ്റ് എത്രയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത് ആ മുപ്പത് പക്ഷേ ഈ ഫോണിനിപ്പോൾ സാറ് പറഞ്ഞ ഫോണിൽ എന്താ ഇരുപത്തി മൂന്നേ ഉളളൂ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി അതിന് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നേയുള്ളൂ അപ്പോൾ സാറ് കുറച്ചുംകൂടി ഇതിനേക്കാളും നല്ല ഫോൺ മേടിക്കാം വേണമെങ്കിൽ സാറിന് മുപ്പത് രൂപയ്ക്ക് സാറെന്നാ പറയുന്നത് സാറ് ഇത് വേണോ അതോ എങ്ങനെ മതിയോ ആ ഇതും നല്ല ഫോണാണ് സാറെ ഇതിൻ്റ ഫീച്ചേർസ് ആ സ്പെക്സ് സാറിത് എന്താ സ്ക്രീൻ സൈസ് സിക്സ് പോയിൻ സെവനിഞ്ചാണ് ബാറ്ററി കപ്പാസിറ്റി അയ്യായിരം ഫൈ ജിയാണ് പിന്നെ എന്താ ഇങ്ങനെ ഒ എസ് ആൻഡ്രോയിഡ് ട്വൽവ് പിന്നെ ബ്ലൂടൂത്ത് പിന്നെ ചാർജ് ടൈമ് ഫോട്ടി ഫൈവ് മിനിറ്റ്സ് ഫുൾ ചാർജാകാൻ ഫാസ്റ്റ് ചാർജിംഗാണ് ആ പിന്നെ ഡസ്റ്റ് പ്രൊട്ടക്ഷനുണ്ട് ഇതിന് ഡ്യൂറബിളിറ്റിയുണ്ട് പെട്ടെന്ന് പൊടി പിടിക്കത്തില്ല അങ്ങനെയൊരു സംഭവമുണ്ട് പിന്നേ അമോൾഡ് അമോൾഡ് ഡിസ്പ്ലേ ടൈപ്പ് അമോൾഡ് എന്താ എഫ് ഡി എച്ച് ഡി ആണ് ഡിസ്പ്ലേയുടെ ഓരോ ഷിഫ്റ്റൻസ് പിന്നെ ബ്രൈറ്റ്നെസ്സ് നല്ല ബ്രൈറ്റ്നെസ്സാണ് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും പ്രൊസസ്സറ് സ്നാപ്പ്ഡ്രാഗൺ സെവൻ സെവൻ സെവൻ എയ്റ്റ് ജിയാണ്

ഗെയ്മിംഗ് കുഴപ്പമില്ല ഇത് സ്നാപ്പ്ഡ്രാഗണില്ലപ്പോൾ അത്രയും വലിയ ഗെയ്മിംഗ് കുറേ കളിക്കാൻ പറ്റത്തില്ലേ ചിലപ്പോൾ ചൂടാവുമായിരിക്കും നോർമ്മലായിട്ട് കളിക്കുകയാണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും പോക്കോ പിന്നെ പോക്കോയെന്നു പറയുമ്പോൾ ഗെയ്മിംഗിന് ഗെയ്മിംഗിന് പറ്റിയൊരു ഫോണാണ് പോക്കോ ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ അത് നമ്മൾ ഓവർ യൂസ് ചെയ്യുമ്പോഴാണ് സാറേ നമ്മളിങ്ങനെ എന്താ അതിപ്പോൾ പോക്കോയുടെ കുറ്റമെന്നു പറയാൻ പറ്റത്തില്ല അത് ഓവർ യൂസിൻ്റെയാണ് നമ്മളിപ്പോൾ നോർമ്മലായിട്ട് യൂസ് ചെയ്തപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നാലോചിച്ചു നോക്കിക്കേ അത് ഏതു ഫോണായാലും കത്തി പോവത്തില്ലേ ആ അതിപ്പോൾ അങ്ങനത്തെ പ്രശ്നമേ വരത്തുള്ളൂ ഓവറ് ഹീറ്റാകാതെ നോക്കുക ഹീറ്റാവുമ്പോൾ ഫോണോഫാക്കി വെക്കുക അത് നമ്മളെല്ലാ ഫോണിലും ഉള്ളതാണ് ഹീറ്റാവുന്ന സംഭവം അതേതു ഫോണായാലും പെട്ടെന്ന് ഹീറ്റാവും അത് തുടക്കത്തിലൊരു ആറ് മാസമൊക്കെ നല്ലപോലെ നിൽക്കുമായിരിക്കും പിന്നെ അതു കഴിഞ്ഞിട്ട് ഏതു നല്ല ഫോണായാലും ഹീറ്റായിത്തുടങ്ങും അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് റേറ്റ് സാറേ ഈ നമ്മൾ ഇപ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ഓഫറ് സാറിൻ്റെ സ്ഥലം എവിടെയാണ് ദൂരെയാണോ അതോ അടുത്താണോ കാഞ്ഞിരപ്പള്ളിയാണോ ഇപ്പോൾ നമ്മുടെ കട കുട്ടിക്കാനം ആണല്ലോ അപ്പോൾ സാറ് സാറിന് സാറിന് ഓഫറിന് ഇത് ഇതിൻ്റെ കൂടെ ഇനി ഇപ്പോൾ ചാർജറ് കിട്ടും ചാർജറ് ചാർജിംഗ് കേബിള് അത് ഒരു സാറിനുവേണ്ട സാറായതുകൊണ്ട് സാറ് ഇതുള്ള ഫ്രണ്ടെന്നൊക്കെ അല്ലെ പറഞ്ഞത് ഞാനെൻ്റെ ഒരിതിനുവേണ്ടി ആ ഒരു ഫ്രണ്ട്ഷിപ്പിനുവേണ്ടി സാറിന് ഒരു എന്താ വയർലെസ് ഇയർഫോണ് ഫ്രീയായിട്ട് തരാം അതോഫറായിട്ട് തരാം ഇതിൻ്റെ കൂടെ പിന്ന റേറ്റോ റേറ്റിൻ്റെ കാര്യത്തിൽ സാറിത് സാറ് ഓൾറെഡി മുപ്പതിനല്ലേ നോക്കിയത് ഇതിപ്പോൾ ഇരുപത്തി മൂന്നല്ലേ ഉള്ളൂ ഇരുപത്തി മൂന്ന് അഞ്ഞൂറല്ലേ ഉള്ളു നമുക്കും

ആ ഇല്ല സാർ അത് തുടങ്ങിയ ആ ഒരു സമയത്ത് പിന്നെയിപ്പം കുറഞ്ഞു കുഴപ്പം ഇല്ല

ആണോ ഓക്കെ സാറെ ഓക്കെ സാർ ഓക്കെ സാറെ എന്നാൽ അത് സാറ് സാറിങ്ങോട്ട് വരുവാണോ ഇപ്പോൾ സാറിങ്ങോട്ടോ അതോ സാറ് ആ മാറ്റി വെച്ചേക്കാം ആ ഓക്കെ ഓക്കെ